എൻ്റെ വീട്ടിൽ എനിക്കിഷ്ടപ്പെട്ട ഭഷണം എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയുള്ള ഭക്ഷണം തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത് പിന്നെ അച്ഛൻ്റെയും അനിയൻ്റെയും ഇഷ്ടം ഞാൻ നോക്കാറുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ ഫുഡ്ഡുണ്ടാക്കി കൊടുക്കാറുണ്ട് എനിക്ക് അച്ഛന് എന്താ പിന്നെ പ്രശറും ഷുഗറുമൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഉപ്പും പഞ്ചസാരയൊന്നും പറ്റില്ല അതുകൊണ്ട് എന്താ പറയുക ഞാൻ അച്ഛന് അധികം ഉപ്പും പഞ്ചസാരയൊന്നും ഉള്ള ഭക്ഷണം അധികം കൊടുക്കാറില്ല അതുകൊണ്ടുതന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുള്ളത് പിന്നെ അതേപോലെത്തന്നെ അനിയന് അനിയന് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഓന് ഇഷ്ടമനുസരിച്ച് ഉണ്ടാക്കിക്കൊടുക്കും അനിയൻ പറയുന്ന ചില ദിവസങ്ങളിൽ അനിയനിഷ്ടമുള്ള പോലെയാണ് ഞാൻ ഫുഡ്ഡ് ഉണ്ടാക്കാറുള്ളത് ചില ദിവസങ്ങളിൽ എനിക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കും എനിക്കിഷ്ടപ്പെട്ട കൂടുതലിഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ് അത് പക്ഷേയെങ്കിൽ അത് കൂടുതലായിട്ടും നെയ്യും മെഴുക്കുമൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടുതന്നെ ഞാൻ അധികം അത് ഉണ്ടാക്കാറില്ല പിന്നെ എനിക്ക് വീട്ടിൽ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന മെയ്ൻ ആയിട്ടുള്ള സാധനം എന്നുവച്ചാൽ ചിക്കൻ കറിയാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കും പിന്നെ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് വീട്ടിൽ ഫുഡ്ഡുകളൊക്കെ ഉണ്ടാക്കാറുള്ളത് അസുഖങ്ങൾ അച്ഛന് അസുഖങ്ങളുള്ളതുകൊണ്ട് അച്ഛൻ പറയുന്ന അച്ഛനിഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല അച്ഛൻ ഫുഡ്ഡ് കഴിക്കുന്നത് ഞാൻ നോക്കാറുണ്ട് അതുപോലെത്തന്നെ അച്ഛൻ്റെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഫുഡ്ഡുകളൊക്കെ ഫുഡ്ഡിലെല്ലാം ഉപ്പ് പുളി എല്ലാം ഞാൻ കുറച്ചിട്ട് ഉണ്ടാക്കും പിന്നെ എന്താ അച്ഛൻ കൊണ്ടുവന്നുതരുന്ന സാധനങ്ങളായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഉണ്ടാക്കാറുള്ളത് അച്ഛൻ അച്ഛൻ പുഴയിൽനിന്ന് മീനിനെ കിട്ടിയാൽ പുഴയിൽനിന്ന് മീനിനെ കൊണ്ടുവരും പിന്നെ പുഴയിൽത്തെ മീനൊക്കെ അച്ഛന് പുളിയും എരിവുമൊക്കെ അധികം ഇട്ടിട്ട് വയ്ക്കണം അച്ഛന് ബി പി ഉള്ളതുകൊണ്ട് ഷുഗറും പ്രഷറും എല്ലാം ഉള്ളതുകൊണ്ടും കൊളസ്ട്രോളുമെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എന്താ ഒക്കെ കുറച്ച് എല്ലാ സാധനങ്ങളും കുറച്ചിട്ടേ ഫുഡ്ഡ് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അച്ഛന് അതധികം ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ ഞാനെൻ്റെ രീതിക്കാണ് അച്ഛൻ്റെ ഹെൽത്ത് എനിക്ക് നോക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് അച്ഛൻ്റെ ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ പല ദിവസങ്ങളിലും ഞാൻ ഫുഡ്ഡ് കുക്ക് ചെയ്യാറുള്ളത് അനിയന് ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ഇഷ്ടത്തിനും ഞാൻ ഉണ്ടാക്കും അച്ഛൻ്റെ ഇഷ്ടത്തിന് ഞാൻ അച്ഛന് ആഗ്രഹം ഉള്ളത് എത്തുമ്പം മാത്രമേ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ